ടോം വട്ടകുടി എന്ന പ്രശസ്ത ചിത്രരചന എന്താ പറയുക ചിത്രരചന ചെയ്യുന്ന ആളാണ് എനിക്ക് എന്താ ഇൻസ്പിരേഷൻ ആയിട്ടുള്ളത് അയാളുടെ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പ്രകൃതിയോട് ഇണങ്ങുന്ന ചിത്രങ്ങൾ ആണ് അങ്ങനത്തെ ചിത്രങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വരയ്ക്കാൻ ഒക്കെ പിന്നെ അല്ലാതെ ബാക്കി അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് ഏറ്റവും ഇഷ്ടം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രരചനകളൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് അതുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം വരയ്ക്കാനും എന്ത് കോമ്പറ്റീഷൻ പങ്കെടുക്കുകയാണെങ്കിലും ഞാൻ അത് അങ്ങനത്തെ ഒരു തീം ഉണ്ടങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പങ്കെടുക്കുകയുള്ളൂ